ഹലോ ആ ഇത് ഓട്ടോ ഡ്രൈവർ അല്ലേ ആ ഇത് മൂന്നാറിലേക്ക് ഒരു ഓട്ടം ഉണ്ടായിരുന്നു ഒരു ഞങ്ങൾ നാല് പേരുണ്ട് എത്ര പൈസ ആവും മൂന്നാറിലേക്ക്

അവിടെ സ്ഥലങ്ങളെല്ലാം നാ നാല് പേരുണ്ട് അപ്പോൾ ഇപ്പം ഇന്ന് ഇപ്പോൾ പതി പതിനഞ്ചല്ലേ ഒരു പതിനെട്ടിന് പോവാൻ വേണ്ടിയിട്ട് ഒരു ഇരുപത്തൊന്ന് ആവുമ്പോഴത്തേക്ക് തിരിച്ച് വരാൻ മൂന്നാർ മാത്രം മൂന്നാർ ഫുൾ കാണാൻ വേണ്ടിയിട്ട്

ആ ടോട്ടൽ പറഞ്ഞാൽ മതി ആ ഏഴായിരത്തഞ്ഞൂറ് അപ്പോൾ ഓരോരോ ആൾക്ക് രണ്ടായിരം ആ ആ ആയി ആയി ആ ആയി ആയി ആയി അപ്പോൾ പതിനെട്ടിലേക്ക് ബുക്ക് ആക്കി കേട്ടോ അപ്പോൾ പതിനെട്ട് എന്തായിരിക്കിലും ബുക്ക് ആക്കിക്കോ രാവിലെ പോവാം ആറ് മണിക്ക് രാവിലെ ആ ആറ് മണിക്ക് വീട്ടിലേക്ക് എത്തിയാൽ മതി ആ അതെല്ലാം നമ്മൾ കഴിക്കുമ്പോൾ നിങ്ങൾക്കും തരാം അതിൽ നിന്നുതന്നെ ആ ആ ഓക്കെ ഓക്കെ